നമ്മുടെ ഇന്ത്യയിലെ തന്നെ നിറയെ ശാസ്ത്രജ്ഞന്മാരുണ്ട് അവര് തന്നെ നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതില് കുറച്ചു പേര് പറയുന്നത് സി വി രാമൻ അദ്ദേഹം പിന്നെ ഹോമി ജെ ബാബ പിന്നെ അബ്ദുൽ ക എപിജെ അബ്ദുൽ കലാം സലീം അലി സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ജഗതീഷ് ചന്ദ്രബോസ് ഇങ്ങനെ കുറെ പേരുണ്ട് നമ്മുടെ ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവര് ഇന്ത്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവര് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് എപ്പോഴും എപിജെ അബ്ദുൽ കലാം തന്നെയായിരിക്കും അദ്ദേഹം ഇന്ത്യൻ എയറോ സ്പേസ് സൈൻറ്റിസ്റ്റ് ആയിരുന്നു അതേപോലെതന്നെ നമ്മുടെ പതിനൊന്നാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം രാമേശ്വരത്ത് ആണ് ജ ജനിച്ചത് അദ്ദേഹം രാമേശ്വരത്ത് തമിഴ്നാട്ടില് ജനിച്ചു പിന്നെ അദ്ദേഹം ഫിസിക്സ് ആൻ്റ് എയ്റോ സ്പേസ് എൻജിനീയറിങ് പഠിച്ചു നമ്മുടെ ഇന്ത്യൻ്റെ വളർച്ചയിൽ ഒരുപാട് പങ്കുകൊണ്ടു അദ്ദേഹം ഞാൻ കണ്ടതില് വെച്ച് ഏറ്റവും എളിമയേറിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം സാധാരണ കുടുംബത്തിൽ നിന്ന് നിന്ന് വന്ന് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എളിമ തന്നെയാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് എത്ര എളി വളർച്ചയിലെത്തിയാലും അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറുന്ന വിധം അതേപോലെതന്നെ അദ്ദേഹം അദ്ദേഹം ഒരുപാട് ഡൌൺ ടു യർത്ത് പേഴ്സൺ ആണ് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അതേപോലെതന്നെ അദ്ദേഹം നമ്മുടെ റോക്കറ്റ് ഇതിലും ഫീൽഡിലും അതേപോലെതന്നെ എയ്റോ സ്പേസ് എൻജിനീയറിങ് ഫീൽഡിലും ഒരുപാട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്